മണ്ണെന്നു പറഞ്ഞാല് കൃഷിയുടെ അടിസ്ഥാനഘടകമാണല്ലോ അപ്പോള് വിളവിൻ്റെ ഗുണനിലവാരവും പിന്നെ മണ്ണിൻ്റെ ആരോഗ്യം ഒക്കെ നിർണയിക്കുന്നത് അതില് ഉപയോഗിക്കുന്ന മണ്ണിന് അനുസരിച്ചാണ് അപ്പോള് ഇന്നു നമ്മള് വ്യാപകായിട്ട് ഈ രാസപദാർത്ഥങ്ങളടങ്ങിയ കീടനാശിനികള് ഉപയോഗിക്കുന്നുണ്ട് അപ്പോള് അതു ദീർഘ കാലം ഉപയോഗിക്കുമ്പോള് മണ്ണിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് പിന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ ഫംഗസ് മുതലായവ നശിച്ചു പോവും ഇതു മണ്ണിൻ്റെ ജൈവശേഷി കുറയ്ക്കുകയും ചെയ്യും വിളവുകളുടെ വളർച്ചയ്ക്ക് തളരുകയും ചെയ്യും അതായത് വിളകള് അങ്ങനെ നശിച്ചുപോകും പിന്നെ മണ്ണിൻ്റെ പി എച്ച് നില തെറ്റും അപ്പോള് കീടനാശിനികള് മണ്ണിൻ്റെ ആസിഡ് ക്ഷാര നിലയിലുള്ള മാറ്റം വരുത്തും അപ്പോള് മണ്ണിൻ്റെ പോഷകങ്ങളില്ലാതാവും പിന്നെ ഇതേപോലെ മണ്ണിൻ്റെ ആരോഗ്യത്തിനെ സാരമായി ബാധിക്കും പിന്നെ മണ്ണിൻ്റെ ഘടന അതായത് വായുസഞ്ചാരശേഷിയും കൂടുതല് അങ്ങനെയുള്ളതൊക്കെ തകർന്നുപോകുന്നതു കാരണം വേരുകൾക്ക് ആവശ്യുള്ള ഓക്സിജനും വെള്ളമൊക്കെ ലഭിക്കാതെ വരും അങ്ങനെയും മണ്ണിനെ അതു ബാധിക്കും പിന്നെ ദീർഘകാലം മണ്ണിലുപയോഗിച്ചാല് അതു മണ്ണിൻ്റെ പോഷകങ്ങളെയും ജൈവസജീവങ്ങളുടെ ഉപഭോഗത്തിനെയൊക്കെ തടസ്സപ്പെടുത്തും ഇങ്ങനെയും വിളവുൽപാദനത്തിൻ്റെ ക്ഷമത താഴാൻ വേണ്ടിയിട്ടു കാരണമാവും പിന്നെ മഴയിലൂടെയും കൃഷി ഭൂമിയിലൂടെയെല്ലാം നീരൊഴുക്കില്ക്കൂടെയൊക്കെ ഈ രാസപദാർത്ഥങ്ങള് ഈ പുഴയിലേക്കും ഒക്കെ ഒഴുകും അപ്പോള് അതു സമീപ പ്രദേശങ്ങളിലെ മണ്ണിനും ജൈവ വൈവിധ്യത്തിനൊക്കെ ദോഷം ചെയ്യും ഇതിനു മെയിനായിട്ടുള്ളൊരു പരിഹാര മാർഗമെന്നുവച്ചാല് ജൈവ കൃഷിയിലേക്കുള്ള തിരിച്ചു പോക്കാണ് ജൈവ കീടനാശിനികള് പിന്നെ തേനീച്ചകളുടെയൊക്കെ ഗുണകരമായ ജീവി അങ്ങനത്തെ ഗുണപരമായ ജീവിയുടെ സംരക്ഷണം പിന്നെ നൈമിഷിക കീട നിയന്ത്രണ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും അതായത് മണ്ണിനെ ബാധിക്കാത്ത രീതിയില് നമുക്കു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കു തിരിഞ്ഞിട്ട് മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക കാരണം കൃഷിയില്ലെങ്കില് പിന്നെ മനുഷ്യനോ മനുഷ്യ ജീവിതമോ ഈ ഭൂമിയില് സാധ്യമല്ലല്ലോ അപ്പോള് നമ്മളതിനനുസരിച്ച് ആ നമ്മളെ ഭാവി തലമുറയ്ക്കും വേണ്ടിയിട്ടുകൂടി നമ്മളിപ്പോഴത്തെ കാര്യം മാത്രമല്ലല്ലോ ചിന്തിക്കേണ്ടത് അപ്പോള് ഭാവിയിലേക്കും കൂടയുള്ള ഒരു ഇതായിട്ട് നമ്മള് ചെയ്താല് ഇപ്പോള്ത്തന്നെ ശ്രദ്ധിച്ചാല് ഒരുപക്ഷേ നമുക്കു നമ്മളുടെ ഭൂമീനെയും മണ്ണിനെയും ഒക്കെ സംരക്ഷിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനു നമ്മള് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ